നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങള് പറയുന്നത് ഒന്നാമതായി വരുന്നത് താജ്മഹാല് കുത്തബ്മിനാറ് ഇന്ത്യ ഗേറ്റ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങള് വരുന്നുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗുരുവായൂര് പിന്നെ ഓരോരോ സ്ഥലങ്ങള് വരുന്നുണ്ട് ഞാൻ താജ്മഹാളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പുരാതനമായിട്ട് തന്നെ കണ്ടുവരുന്നൊരു ഇതാണ് ഡൽഹിയിൽ കണ്ടുവരുന്നൊരു സ്ഥലമാണ് പിന്നെ കുത്തബ്മിനാര് അത് അതും കാണാൻ ഭംഗിയും ഉള്ള സ്ഥലമാണ് പിന്നെ നമ്മള് ടൂറിസ്റ്റ് പ്ലേസുകള് പല പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടെ പോയി കാണുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മള് പല പല ഒരേ സ്ഥലത്ത് തന്നെ പോകാണ്ട് പല പല പ്രദേശങ്ങളില് പോയി നമ്മള് ഒരു സർച്ച് നടത്തുന്നത് നല്ലതാണ് പഴയകാല കാലത്തെ പറ്റിയും പഴയ നടന്ന ചരിത്രപരമായ കാര്യങ്ങളെ പറ്റി അറിയാനും കേൾക്കാനും ടൂറിസം ടൂറിസ്റ്റ് ഒരു ഇതാവുന്നുണ്ട് പിന്നങ്ങനെ വലിയ വലിയ സ്ഥലങ്ങള് ഉണ്ട് നമ്മുടെ പെരിയാറ് അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകള് ഉണ്ട് ഡാമുകള് ഇടുക്കി ഡാമ് അതെല്ലാം ടൂറിസ്റ്റ് സ്ഥലങ്ങളില് പെടുന്നതാണ്